ഹൗസ് ബ്രോക്കർ ആണോ നമുക്ക് കോഴിക്കോട് അതായത് ഒരു വൺ ഇയറിലേക്ക് നമുക്കൊരു പിന്നെ ഒരു വീട് വേണമായിരുന്നേ അപ്പം അത് അവൈലബിൾ ആണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഞാനിപ്പോൾ ഞാനിപ്പോൾ ഒരു ടെക്നോ കെമിക്കൽസിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിവിടേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് ഒരു വർഷത്തേക്ക് അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് മതി ട്വന്റി ഫൈവ് എങ്ങനെയാണ് വീട് എത്ര റൂം ഒക്കെ ഉണ്ട്

സിറ്റ്ഔട്ട് അല്ലേ ആ അത്യാവശ്യം സെറ്റപ്പ് വീടാണോ അതോ അതായത് നമുക്ക് ആണല്ലേ ഹാ ഹാ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് അവിടെ അടുത്ത് എങ്ങനെയാണ് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് കുട്ടികളെ ഒന്ന് സ്കൂളിൽ വിടാൻ ആ നമുക്ക് അടുത്തുതന്നെ സ്കൂൾ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ ഇതാണല്ലോ ആണല്ലേ ആ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞങ്ങളിവിടെ ബാംഗ്ലൂർ ആണുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫോണിൽ വീടിൻ്റെ ഫോട്ടോയും കാര്യങ്ങളുമൊക്കെ ഒന്ന് ഇട്ടുതരണം കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ആ ഈ നമ്പറിൽ തന്നെ ഇട്ടുതന്നോണ്ടാ ഇട്ടുതന്നാൽ മതി ആ അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങൾ വന്നോളാം പിന്നെ എന്നിട്ട് പൈസ തരാം അഡ്വാൻസ് തരാം അപ്പം അതിനുവേണ്ടിയായിരുന്നു

ആ ഇരുപത്തയ്യായിരം രൂപ അല്ലേ നമുക്ക് ആ വീടിനാണെങ്കിൽ ഇരുപത്തയ്യായിരം ആ മാസം അയ്യായിരം ആണല്ലേ ആ ഹാ ഹാ ഹാ അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് വീടും ബാത്റൂമും എല്ലാം നമുക്ക് ഫോട്ടോ ഇട്ടുതരണം കേട്ടോ ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെയൊന്നു കോൺടാക്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഞങ്ങളൊന്ന് വന്ന് നോക്കാം ഓക്കേ താങ്ക് യൂ